ഹലോ ഈ സൽക്യാബ്സല്ലേ ഒരു ക്യാബ് ബുക്ക് ചെയ്യാനായിരുന്നു ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നെടുമങ്ങാടാണ് അപ്പോൾ എനിക്ക് ഈ മാസം ഇരുപതാം തീയതി ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഒരു ഡ്രൈവറിനെയും വണ്ടിയും നമുക്കാവശ്യമുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഒരു നാല് മണിക്ക് പോകാൻ കണക്കിന് എത്താൻ ഉള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം പിന്നെ പിറ്റേ ദിവസമേ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളു നമുക്കവിടെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പിറ്റേന്ന് എത്താൻ കണക്കിന് വരുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാബ് നമുക്ക് അറേൻജ് ചെയ്ത് തരണം